ഹലോ സ്വിഗ്ഗിയുടെ ഡെലിവറി പാർട്ണർ അല്ലേ ആ ഓക്കെ എൻ്റെ പേര് ജിതിൻ എന്നാണേ ആ ഞാൻ ഒരു ഓർഡർ പ്ലേസ് ചെയ്തിട്ടുണ്ടാർന്നു ആ അതെയതെ അതേ അൽഫാം മന്തി അത് പിക് അപ്പ് ആയോ അങ്ങോട്ടെത്തുന്നതേ ഉള്ളൂ ആ ഓക്കേ അപ്പം ഞാൻ വിളിച്ചത് ഹാലോ ആ അപ്പം ഞാൻ വിളിച്ചത് എന്താണെന്നറിയുമോ ഞാനൊരു എനിക്കാ കൂടെ ഒരു കോക്ടയിലും കൂടി അവിടെ നിന്ന് ക്യാരി ചെയ്യാൻ പറ്റുമോയെന്ന് അറിയാനായിരുന്നു ആ അവിടെ അവൈലബിൾ ആയിട്ടുള്ള ഏതെങ്കിലും ഒരു കോക്ടയിൽ ആണല്ലേ ആ ഓക്കെ നോ പ്രോബ്ലം ആ ഞാൻ ഞാൻ ക്രിസ്ത്യൻ കോളേജിൻ്റെ സ്റ്റാഫ് ആണേ അപ്പം കോളജിന് അകത്തു തന്നെ ഉണ്ടാകും എത്ര സമയം കൊണ്ടെത്തും പതിനഞ്ചു മിനിറ്റല്ലേ ആ ഓക്കേ ഓക്കേ ഓക്കേ ആ നിങ്ങൾക്ക് എക്സ്ട്രാ ക്യാരി ചെയ്യാൻ പറ്റും എന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ക്യാരി ചെയ്ത് മേടിച്ചോളൂ ഞാൻ ഇവിടെ വരുമ്പോൾ പേയ്മെന്റ് തന്നാൽ മതിയല്ലോ ആ ഓക്കേ ടാങ്ക് യൂ ടാങ്ക് യൂ ആ ക്രിസ്ത്യൻ കോളേജ് എത്തുമ്പം എന്നെ വിളിച്ചാൽ മതി ശരി ഓക്കെ